ഹലോ ഇത് ജോസ് കിച്ചൺ റെസ്റ്റൊറൻ്റല്ലെ ഞാന് ഒരു ഫുഡ് ഓഡര് ചെയ്തിരുന്നു പക്ഷെ ഡെലിവറി ചെയ്യുന്ന സമയം കഴിഞ്ഞു ഡെലിവറി ചെയ്യപ്പെടേണ്ട സമയം കഴിഞ്ഞു ഡെലിവറി ചെയ്യുന്ന ആളെ കോളിലൂടെ കണക്റ്റെയ്യാൻ ശ്രമിച്ചിട്ട് പുള്ളി ഫോൺ അറ്റൻഡെയ്യുന്നില്ല എന്തുകൊണ്ടാണ് പുള്ളി കോൾ അറ്റൻഡ് ചെയ്യാത്തത് എന്നറിയാമോ എന്തെങ്കിലും റേഞ്ച് പ്രശ്നമാണോ എന്നറിയില്ല അവിടുന്ന് പോന്നിട്ട് സമയമായി ഇവിടെ എത്തിച്ചേരാറായോ പുള്ളിയെ കോളിൽ വിളിച്ചിട്ട് കണക്ട്ഡ് ആവുന്നില്ല ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നു എന്ന് അറിയുക അറിയണം